ചേച്ചിയേ ആ തിരക്കിലാണോ ആ ഞാനിവിടെ ഒന്ന് കറങ്ങാൻ ഒക്കെ ആയിട്ട് വന്നതാണ് ഇപ്പം ഈ നാടി അല്ല അവിടെയുള്ള ആളല്ല ആ ഞങ്ങള് കോഴിക്കോട്ടു നിന്നാണ് അതായത് ഞങ്ങൾ ഇവിടെ ഫാമിലി ആയിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായീന് ഞങ്ങൾ ഫാമിലീൻ്റെ കൂടെ വന്നതാണ് അപ്പോ അപ്പം ഇവിടുത്തെ സീഫുഡ് ഐറ്റം ഒക്കെ കിട്ടുന്ന ഒരു റസ്റ്റോറൻറ് ഏതാ എന്നൊക്കെ അറിയാൻ വേണ്ടീട്ടാണേ ആ ഏതൊക്കെ ഏതൊക്കെ സീഫുഡ് കിട്ടും അതെ അല്ലേ അതെ ആ പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു മീൻ ചട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു കട കണ്ടിരുന്നു അപ്പം അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെ ആണെന്ന് അറിയാൻ വേണ്ടീട്ട് ആ അതെല്ലേ അടുത്തൂന്ന് വേണമല്ലേ ആ

കുഴപ്പമില്ല അല്ലെ ആണല്ലേ ആ ആ ആ ഞങ്ങൾ കൂടുതലും സീഫുഡ് ഐറ്റംസിനോട് ആണ് ഞങ്ങൾക്ക് കുറച്ച് താൽപര്യം അപ്പോ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതുമാത്രം അങ്ങനെ കിട്ടുന്ന കടകളെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് വലിയ ധാരണയില്ലല്ലോ ഞങ്ങൾ കോഴിക്കോടുന്ന് വന്നവരല്ലേ അതുകാരണം ഒന്നുകൂടെ ചോദിച്ചിട്ട് ആണല്ലേ ആ ഞാൻ മീൻ ചട്ടീൻ്റെ അത് യൂട്യൂബിൽ കണ്ടിരുന്നു അപ്പം അങ്ങനെയാണ് അറിഞ്ഞത് ആ ഹോമ്ലി ഫുഡ് ആണല്ലേ ആ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് ഞങ്ങൾക്ക് ആവശ്യം

ആ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നത് കാരണം ഞങ്ങൾ നേരെ ഉള്ള നല്ല സ്ഥലത്തേക്ക് പോണോല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് വലിയ ധാരണയില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ആ അതെയോ

ആ അതൊന്നും കുഴപ്പമില്ല അല്ലേ ചേച്ചി ഇവിടുന്നൊക്കെ കഴിച്ചിട്ടുണ്ടോ പോയി കഴിച്ചിട്ടുണ്ടല്ലേ ആ ആ ആ എവിടെ ഇവിടെ അടുത്തന്നെ ആണോ ചേച്ചീൻ്റെ വീട് ആ ഓ ഓ ഓ ഓ അതാണല്ലേ അപ്പം വെറുതെ നടക്കാൻ ഇറങ്ങിയതാണോ ആഹാ അതെ അതെ അതെ താങ്ക്യൂ ചേച്ചി താങ്ക്യൂ ആ ആ ആ ആ ആ ആ അങ്ങനെയാണല്ലേ ഓക്കെ ശരി ചേച്ചി ശരി ചേച്ചി കാണാം പിന്നെ കാണാം ഒക്കെ